ആദ്യമായിപ്പോള് നമ്മള്ക്ക് ഒരു സംരഭം തുടങ്ങാണോന്നുണ്ടെങ്കില് ആദ്യമായിട്ട് തന്നെ നമുക്ക് സാമ്പത്തിക പരമായിട്ട് നമുക്ക് സാമ്പത്തികം കണ്ടെത്തണ്ടതായിട്ടുണ്ട് അത് നമ്മളുടെ കയ്യിലില്ലായെങ്കില് നമ്മള് ഏതെങ്കിലും ബാങ്കിനെ ആശ്രയിക്കുകയോ അല്ലെങ്കില്വ്യക്തി പരമായിട്ട് നമക്കിപ്പോള് ചെയ്യാൻ കഴിവില്ലാത്തവരാണേല് ബാങ്കിനെ ആശ്രയിക്കുന്നത് അപ്പോള് ബാങ്കിനെ ആശ്രയിച്ച് നമ്മള് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുക ചെയ്യുമ്പഴ്ത്തേനും നമ്മള് നമുക്കാ ബാങ്ക് വഴി നമ്മള്ക്ക് നമ്മള് നമ്മള്ക്ക് വേണ്ടി അവര് സപ്പോർട്ട്യ്യും അതനുസരിച്ച് നമ്മള് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള ഇപ്പോള് നമ്മള് ഒരു കടയാണെന്നുണ്ടെങ്കില് അതിനുള്ള സ്ഥലം കണ്ടെത്തുക കെട്ടിടം കെട്ടിടം കണ്ടെത്തുക അതില് നമ്മളതിനുള്ള സാധനങ്ങളെല്ലാം നിറയ്ക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇതെല്ലാം നോക്കുക പിന്നെ നമ്മള്ക്കത് എവിടുന്നാണതിന് നമുക്ക് കടയിൽ കച്ചവടം ചെയ്യത്തക്ക രീതിയിലുള്ള മാർജ്ജിനുള്ള സംഗതികൾ കിട്ടുന്നത് എവിടാന്നുള്ളത് തിരക്കുക എവിടെ എവിടെ നിന്നാണ് നമുക്കത് കിട്ടുന്നതെന്ന് തിരക്കുക അതെല്ലാം അനുസ അതെല്ലാം അതെല്ലാം ആക്കി വെച്ചതിന് ശേഷം നമ്മള് കടയ്ക്കനുയോജ്യമായിട്ടുള്ള കെട്ടിടം എല്ലാം കണ്ടിട്ട് അവിടെ നമ്മള് സംരംഭം തുടങ്ങാനായിട്ടുള്ളതെല്ലാം പിന്നെ ആക്കിവെക്കുക പിന്നെ നമ്മളത് ഹോൾസെയ്ലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി അതിൻ്റെ മാർജ്ജിനെല്ലാം നോക്കുകയും പിന്നെ അതിനെ നമ്മള് അതിന് നമ്മള് കൊടുക്കേണ്ടതായിട്ടുള്ള പിന്നെ വിലകള് വില നമ്മള് വിലയിരുത്തി അതെലെല്ലാം ആക്കിയെല്ലാം വെക്കുക പിന്നെ എല്ലാം ഓർഡറനുസരിച്ച് എല്ലാം ആക്കി വെച്ചതിന് ശേഷം നമ്മള് എന്താണ് കട നടത്താനായിട്ടുള്ള പരിപാടികളെല്ലാം ആരംഭിക്കുക പിന്നെ അതിന് ശേഷം നമ്മള് പിന്നെ മുടങ്ങാതെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മള് മുടങ്ങാതെ നമ്മളെടുത്തിരിക്കുന്ന സാമ്പത്തികം തിരിച്ച് ബാങ്കിലേക്കടക്കാനും അടച്ച് നമ്മുക്കവര് അവര് നമ്മളിലൊരു വിശ്വാസയോഗ്യമായിക്കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമ്മൾക്ക് അവിടെ നിന്നും പിന്നെയും പ വായ്പ്പയായിട്ടെടുത്തുകൊണ്ട് നമ്മളീ തുടങ്ങിയേക്കുന്ന സംരംഭത്തെ കൂടുതലായിട്ട് വിജയിപ്പിക്കുവാനൊക്കെ നമുക്ക് സാധിക്കും അതുകൊണ്ട് ക്കനെ മുടക്കങ്ങളില്ലാതെ നമ്മളാ ബാങ്കിലെ കടങ്ങള് വീട്ടിയെടുക്കുക പിന്നെ മാർജ്ജിൻ കുറവുള്ള എ എവിടെയാണെന്ന് വച്ചാല് മാർജ്ജിൻ കുറവുള്ളടത്ത് പോയി സാധനങ്ങളെല്ലാം എടുക്കുകയും അതിന് അതനുസരിച്ച് നമ്മളിവിടെ കൊണ്ട് വന്ന് അതിന്റെയും കൂടെ കൂട്ടി തുക എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെലവാകുന്ന തുകകളെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷമേ നമ്മള് പിന്നെ നമ്മള്ക്കൊരു സാധനങ്ങള് വിക്കെ വിറ്റ് നമ്മള്ക്ക് ഫലദായകമാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അതനുസരിച്ച് നമ്മള് അതില് മാർ വില വില ഇടുകയും വില അനുസരിച്ച് നമ്മള് കൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുക എന്നിട്ട് നമ്മള്ക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണെന്നുണ്ടെങ്കില് നമ്മളാ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും എന്നിട്ട് നമ്മള് ഇപ്പോള് നമ്മള്ക്ക് വേറൊരാളെ അതിൽ നിന്നും പിന്തുണയ്ക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടങ്കില് നമ്മളാ ആ അവസരോം പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മൾക്കവര് അവർക്ക് അവരെയും പിന്തുണച്ച് അവർക്കും ഓരോരോ സംരഭങ്ങള് ചെയ്യത്തക്ക രീതിയില് നമ്മള് അവരെ സഹായിച്ച് കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മൾക്ക് ഉയർച്ച കണ്ടെത്തുവാനും സാധിക്കും